ഞാനെടുത്ത ചിത്രത്തിലെന്നു പറയുമ്പോൾ ഒരു ഒരു പട്ടിയുള്ള ചിത്രമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി കാരണം അതിൻ്റെ ഒരു എടുത്തിട്ട് നമ്മൾ അത് എഡിറ്റ് ചെയ്യണം അതിൻ്റെ ഒരു ഗ്രെയ്ഡിങ്ങക്കെ കൊടുത്ത് പിന്നെ അതിൻ്റെ ഒരു ബാഗ്രൗണ്ടും അതൊക്കെ പോർട്രേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മൃഗങ്ങളെ ഫോട്ടോ എടുക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആ ഫോട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സോഷ്യൽ ഇൻസ്റ്റാഗ്രാമിലിട്ട് കൂടുതൽ ലൈക്കും അതിന് കിട്ടിയിട്ടുണ്ട് ഒരു ഒരു കുളക്കടവിൽ ഇരിക്കുന്ന ഒരു പട്ടി ഒരു പൂമ്പാറ്റ അതിൻ്റടുത്ത് വന്നിരിക്കുമ്പോൾ പൂമ്പാറ്റയിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോവാണ് ഞാനെടുത്തത് അതിൽ രണ്ടും രണ്ടിനും നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് കൂടുതലത് രസകരമായി തോന്നിയത് അങ്ങനെയൊക്കെയാണ്